ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽല് റൂമുകളൊക്കെ ബുക്ക് ചെയ്യാനും നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ബുക്ക് ചെയ്യാനും നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പറുകൾ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ ഉള്ളതു കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിയാൻ സാധിക്കുന്നത് ഈ ഫോണുകളും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ നമ്മൾ നേരിട്ട് ചെല്ലണം പക്ഷെ ഫോണുകളുള്ളതിനാൽ നമുക്ക് ടിക്കറ്റ് ബസ്സിനുള്ള ടിക്കറ്റ് ട്രെയിനിനുള്ള ടിക്കറ്റ് വിമാനത്തിനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് സ്വയമേ മൊബൈൽ ഫോണിൽ തന്നെ എടുക്കാൻ സാധിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഈ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതുമാണ് സാങ്കേതിക വിദ്യകളുടെ വളർച്ച മൂലമാണ് ഇതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നത് സാങ്കേതിക വിദ്യകൾ വളർന്നില്ലായിരുന്നു എങ്കിൽ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ടിക്കറ്റുകൾ അതായത് ബുക്ക് ചെയ്യാൻ വേണ്ടീട്ട് ബെസ്സ് ട്രെയിന് വിമാനം ഇങ്ങനെയുള്ള നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇന്നും നേരിട്ട് പോയി ചെയ്യേണ്ട അവസ്ഥയായിരുന്നേനെ പക്ഷേ സാങ്കേതിക വിദ്യകൾ വളർന്നതു കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ട് നമ്മുടെ ജീവിതം കുറച്ചൂടെ മെച്ചപ്പെടുത്താനും അത് സഹായിക്കുന്നുണ്ട്